കേരളത്തിൽ വളരെയധികം പ്രേക്ഷക വൃന്ദം ഉള്ളത് ഈ നൃത്തോത്സവം നൃത്തോത്സവങ്ങളും അതേപോലെ ഈ തെയ്യം ഇതുപോലെയുള്ള സംഗതികൾ ഓണം സമയത്ത് നമുക്ക് ഇവിടെ വരാറുണ്ട് അപ്പോഴാണ് ക്ലാസിക്കൽ ഡാൻസ് നാടോടിനൃത്തം ഇതെല്ലാം വരുന്നത് മാത്രമല്ല ഈ കേരളപ്പിറവി ദിനങ്ങളിൽ ഒരാഴ്ച ഇതു പോലെയുള്ള ആഘോഷം നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കാറുണ്ട് ഇവിടെയൊക്കെ ഞാനും കാണാനും പങ്കെടുക്കാനും ആസ്വദിക്കാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെ മകളും ഈ ക്ലാസിക്കൽ ഡാൻസിൽ വളരെ ഒരു മികച്ച നർത്തകിയായിട്ട് സ്കൂൾ കാലത്ത് ഉണ്ടായിരുന്നു പിന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്തും കുറച്ചു നാൾ അതിൻ്റെ പുറകെ പോയി പിന്നീട് അത് തുടർന്ന് കൊണ്ടു പോകാനായിട്ടു സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി അങ്ങനെ അത് ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷേ ഈ ഓണം വാരത്തിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വരുന്ന നൃത്തങ്ങൾ അല്ലെങ്കിൽ നാടോടി നൃത്തം വരാറുണ്ട് ക്ലാസിക്കൽ ഡാൻസ് വരാറുണ്ട് ഇതെല്ലാം ധാരാളമായിട്ട് കാണാനായിട്ടു ഞാൻ ആഗ്രഹിക്കുകയും പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെത്തന്നെ ഈ കേരളപ്പിറവിയുടെ ഒരാഴ്ച്ചക്കാലത്ത് പ്രോഗ്രാമുകൾ നടത്തുന്ന അവസരങ്ങളിൽ വീ ജേ ടി ഹോളിലും മറ്റും ഒക്കെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിനും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ സ്കൂൾ തലത്തിലുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപയോഗിക്കുന്ന സമയത്ത് അതു കാണാനും കൂടുതലാസ്വദിക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും വലിയൊരു പ്രേക്ഷകവൃന്ദം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം